ഹലോ നമസ്കാരം കല്ല്യാണ ക്യാബ് ഏജൻസിയല്ലേ ഞാൻ ഇവിടെ അങ്കമാലി മങ്ങാട്ടുകര നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് സരിത എന്നാണ് ഞാൻ അവിടെ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്യാറുള്ള ആളാണ് ക്യാബ് ബുക്ക് ചെയ്യാറുള്ള ആളാണ് നമ്മൾക്ക് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യാനായിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടായിന്നു ഇപ്പോൾ വിളിച്ചത് ഞങ്ങൾക്ക് ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവും പോവാനായിട്ട് അപ്പോൾ അത്രയും പേര് പോവാൻ പറ്റിയ ഒരു വണ്ടിയും വേണം അതുപോലെ തന്നെ അതിനൊരു ഡ്രൈവറും ആവശ്യമാണ് ആ അപ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപയൊക്കെ ആവും റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടു ഡേയ്സ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ സമ്മർ സീസണായത് കൊണ്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ സ്ഥിരമായിട്ട് അവിടെ നിന്ന് വിളിക്കുന്നത് ആയത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരണം ആ അപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ നമ്പറിലോട്ട് ഒന്ന് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാമോ ആ ആ ഇതെൻ്റെ നമ്പറാണ് ഇതിലോട്ട് ഒന്ന് തിരിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഓക്കെ താങ്ക് യു